ആ അതെ അതെ പറ പറഞ്ഞോ മാം അതെ അതെ ആ

ആ ആ ഫസ്റ്റ് അസസ്മൻറ് കുഴപ്പമില്ലായിരുന്നു മാം അത്യാവശ്യം മാർക്ക് എല്ലാം ഇംഗ്ലീഷിന് മാത്രമേ ഉള്ളായിരുന്നു ഇത് കുറവ് ബാക്കി എല്ലാം കുഴപ്പമില്ലാതെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷിന് ട്വൻറിയിൽ ടെൻ അതേ ഉള്ളായിരുന്നു നല്ല കുറവായിരുന്നു മാർക്ക് ആ ആ ആ ആ ആ ആ വീട്ടിൽ വന്നാൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആണ് ആൾക്ക് ആ ബുദ്ധി വായിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഇംഗ്ലീഷ് വായിക്കാനൊക്കെ ഓ ഇല്ല ഇല്ല ഇല്ല വായിക്കാനൊക്കെ ആ അതെ അതെ അത് വായ ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ട് ആൾക്ക് വായിക്കാനൊക്കയേ അതിൻറേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ട് പിന്നെ ആ ആ ആ ഓക്കെ മാം